മെഷിൻ പ്രവർത്തനമൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഗൂഗിൾ മാപ്പിനെ പറ്റി പറയുവാണെങ്കില് എനിക്ക് ഞാനുപയോഗിച്ചിട്ടില്ല എങ്കിലും എൻ്റെ മക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പുകള് ഇപ്പം യാത്രക്കാരും ടൂറിസ്റ്റുകളുമെല്ലാം മാപ്പ് ഈ ഗൂഗിൾ മാപ്പ് നോക്കിയാണല്ലോ വഴി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്താൽ നമ്മൾ എവിടെയേലും നിർത്തി ആരോടേലും വഴി ചോദിക്കണം ഇങ്ങോട്ട് പോകുന്ന വഴി ഏതാണ് ഏത് സൈഡാണ് എവിടെ എത്ര ദൂരമുണ്ടെന്നൊക്കെ ഇപ്പം അങ്ങനെയല്ല ഗൂഗിൾ മാപ്പ് എല്ലാം വണ്ടിക്കാതിരുന്ന മതി ഇവര് മൊബൈലുപയോഗിച്ച് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോവുന്നത് അത് മക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാനുപയോഗിച്ചിട്ടില്ല പിന്നത് എത്രത്തോളം കൃത്യമാണെന്ന് ചോദിച്ചാൽ അത് നൂറ് ശതമാനം കൃത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം എന്താന്ന് ചോദിച്ചാല് ഈ ഇടക്ക് ഈ അടുത്ത കാലത്ത് ഗൂഗിൾ മാപ്പ് നോക്കി കാറോടിച്ച് പോയ ഒരാള് അപകടത്തിൽപ്പെട്ട് കാറും ആളുവൊക്ക പോയ ചരിത്രങ്ങളും ഉണ്ട് അപ്പം അത് എല്ലാ ഒന്നും ശെരിയല്ല എല്ലാ സ്ഥലങ്ങളും ഗൂഗിൾ മാപ്പിൽ വരണമെന്നുമില്ല അത് പിന്നെ ഏത് കാര്യത്തിനും തെറ്റ് പറ്റാം അത് അതുപോലെ ഗൂഗിൾ മാപ്പ്കളും തെറ്റാറുണ്ട് എല്ലാമൊന്നും ശെരിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം